ആറ് ഒന്ന് രണ്ടായിരത്തി ആറ് നാല് മൂന്ന് ആയിരത്തിത്തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തിപ്പത്ത് ഇരുപത്തിനാല് രണ്ട് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഇരുപത്തഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട്